ഇപ്പം ആൾക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പം എടുത്തു പറയുന്നത് എൻ്റെ മാതാപിതാക്കളെ പറ്റിയാണ് ഇപ്പം അവരുടെ ആ ഒരു കാലത്ത് ഇപ്പം ഈ സാങ്കേതിക വിദ്യകൾ മെയിനായിട്ട് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇതിനൊന്നും പറ്റിയൊന്നും ഒരു വലിയ ഐഡിയ ഇല്ല അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ ചെറുപ്പം അതായത് നമ്മൾ ഇതിൽ ഇതിൽ അത്യാവശ്യം ഇത് കണ്ടാണ് വളരുന്നത് സോ നമ്മൾ ഇത് അത്യാവശ്യം അവരോടൊപ്പം ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളെക്കാളും കൂടുതൽ നമ്മൾ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് സോ ഇപ്പം സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് വാച്ചസ് മൊബൈൽസ് ലാപ്ടോപ്സ് അങ്ങനെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെയാണ് അത് നന്നായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ അറിയാം അപ്പം അവർ ആണെങ്കിൽ അത് ഇപ്പം മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അതിനെ സംബന്ധിച്ചു സംശയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും എന്നു തന്നെ പറയേണ്ടി വരും അവർ അവർക്ക് അതിനെ പറ്റി നല്ല അറിവ് കാണും അവർക്ക് അതിനെ പറ്റി കൂടുതൽ മാതാപിതാക്കളെ സഹായിക്കാൻ പറ്റും